ഫിഷ് മാർക്കറ്റ് അല്ലേ ഇത് തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത് നമ്മളെ ഇവിടെ കോളേജിൽ ഒരു സ്റ്റുഡൻ്റ്സ് ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ അടുത്ത മാസമാണ് നടക്കാൻ പോവുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ പിള്ളേരാണ് ഫുള്ള് സ്റ്റുഡൻസ്സ് ആയത് കൊണ്ട് നമ്മൾ ഫുഡ്ഡ് കൊടുക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും നമ്മൾ ഫിഷ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് സ്റ്റുഡൻസ്സ് ആയത് കൊണ്ട് തന്നെ അത് അത്രയും സേഫും ആയിരിക്കണം ഫ്രഷും ആയിരിക്കണം ക്ലീനും ആയിരിക്കണം അപ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് അവൈലബിൾ ആണോ ഓക്കെ ആണോ ഏതൊക്കെ മീനാണ് അതെ അതുപോലത്തെ പിള്ളേരാണ് ആ അപ്പോൾ അത് പ്രശ്നം ഇല്ല ആ എന്നാച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുള്ള് വെറൈറ്റിയാണ് അതായത് ഒരേ മീൻ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും കൊടുക്കേണ്ടല്ലോ അപ്പോൾ എല്ലാ ദിവസത്തേക്ക് ആയിട്ട് വേറെ വേറെ മീൻ കിട്ടും എങ്കിൽ അത്രയും നല്ലത് പിള്ളേര് ഒരു നൂറിൻ്റെ അടുത്തുണ്ടാവും ആ ഓ ഏകദേശം എത്രയാവും എന്ന് വല്ല ഐഡിയ ഉണ്ടോ ഓ ഒരു ചെറിയ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടത് എങ്കിൽ ആ ഒരു ടൈമാവുമ്പോൾ ഓർഡറ് ചെയ്താൽ പോരേ ഓക്കെ ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഓർഡറ് ചെയ്യുക എങ്ങനെയാണ് ഉണ്ടാവുക ക്ലീൻ ചെയ്തിട്ടാണോ തെരുഅ അതോ നമ്മൾ ക്ലീൻ ചെയ്യണോ ഓക്കെ താങ്ക് യു അപ്പോൾ ഞാൻ എന്തായാലും ഈ വീക്ക് തിങ്കളാഴ്ച ഞാൻ എന്തായാലും ഓർഡറ് ചെയ്യാം ഓക്കെ താങ്ക് യു